പാലക്കാട് ജില്ലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൾ എന്ന് പറയുമ്പോൾ എല്ലായിടത്തുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യാതൊരു കുറവുമില്ല അതു സ്കൂള് തലത്തിലാണെങ്കിലും കോളേജ് തലത്തിലാണെങ്കിലും ശരി സർക്കാർ തരത്തിലുണ്ട് പ്രൈവറ്റ് തരത്തിലുണ്ട് എൻജിനിയറിങ്ങ് കോളേജുണ്ട് ഐ ടി ഐ ഉണ്ട് ഐടിഐകള് പ്രത്യേക പരിശീലനം കൊടുത്തിട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലായിടത്തും ഐ ടി ഐകളുണ്ട് കുഴമനത്ത് ഉണ്ട് അതുപോലെ വെള്ളപ്പാറയിലുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് നേഴ്സിങ്ങിനുള്ള സ്കൂളുണ്ട് കോളേജുണ്ട് അതുപോലെ മെയിൻ പാലക്കാട് ജില്ലയിലെ എന്ന് പറഞ്ഞപ്പോൾ പ്രൈവറ്റ് മേഖലയിലും പുതിയ ഏവിയേഷൻ അത് പറഞ്ഞാ നെഹ്റു കോളേജാണ് അതുപോലെ അമ്മിണിയുണ്ട് അതുപോലെ അങ്ങനെ പ്രൈവറ്റ് കോളേജ് എൻജിനിയറിങ്ങ് കോളേജ് ഒരുപാട് വന്നിട്ടുണ്ട് പാലക്കാട് മലമ്പുഴയിൽ എൻ എസ് എസിൻ്റെ എൻജിനിയറിങ്ങ് കോളേജൂണ്ട് കഞ്ഞിക്കോടാണ് നമ്മുടെ ഐ ഐ ടി ഉള്ളത് പിന്നെ എൻ എസ് എസിൻ്റെ എൻജിനിയറിങ്ങ് കോളേജ് കോളേജ് ഒറ്റപ്പാലത്താണ് ഉള്ളത് ഏവിയേഷൻ സയൻസ് പഠിപ്പിക്കുന്ന ആകെ ഒരെണ്ണം പ്രൈവറ്റുള്ളത് അത് ഏറോനോട്ടിസ്സ് എൻജിനീയറിങ്ങാണ് അത് പഠിപ്പിക്കണത് നെഹ്റു കോളേജിലാണ് അത് പാലക്കാട് ജില്ലയിലെ പാമ്പാടിയാണ് അല്ല ലക്കിടി മങ്ങലത്താണ് പിന്നെ ഐ ഐ ടി ഐകള് ഒരുപാടുണ്ട് എല്ലാ ബ്ലോക്കിൻ്റെ കീഴിലും പഞ്ചായത്തിൻ്റെ കീഴില് ഒരുപാട് മറ്റേ പുതിയ തരത്തിലുള്ള കോളേജുകളുണ്ട് അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളെ താങ്ങാവുന്ന ഫീസെന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ ഫീസെന്ന് പറയാനില്ല സർക്കാർ തലത്തിൽ ആ സ്ഥാനത്ത് കോളേജ് തലത്തിൽ എൻജിനീറിങ് തലത്തിലൊക്കെ പ്രൈവറ്റാണെങ്കിൽ നല്ല ഫീസ് വേണം ആ ആളുകൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് അല്ല ആളുകൾ ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ എന്നതിലുപരി ഇപ്പോൾ മെയ്നായിട്ട് ഐ ടി ഐ ഐ ഐ ടിയാണ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഇയാണ് അതുപോലെ തന്നെ സിവിൽ എൻജിനിയറിങ്ങാണ് കാരണം ഏതിനോടാണോ ഈ ഈ കാലഘട്ടത്തിൽ കൂടുതൽ തൊഴിൽ കിട്ടാൻ സാധ്യത ആ കോഴ്സിനെ ഇഷ്ടപ്പെടുക എന്നതല്ലാതെ ആ വിഷയത്തിനോട് താൽപര്യപ്പെട്ട് അങ്ങനെ വിഷയങ്ങള് കൈകാര്യം ചെയ്യാനും പഠിക്കാനും വേണ്ടീട്ടുള്ള ആൾക്കാരല്ല ഇപ്പോൾ അതേത് തരത്തിലായാലും ഇപ്പോൾ ഐ ടി ഐയിലൊക്കെ ഏത് സീറ്റാണ് കിട്ടണത് അതിൽ ചേരണു അത് പഠിക്കണു അത് അതിനോട് എന്തെങ്കിലും ചിലപ്പോൾ പ്രത്യേകിച്ചൊരു മാനസ്സിക താൽപര്യം എന്തെങ്കിലും അറിവോ കേട്ട് പരിചയമോ അല്ലെങ്കിൽ ആ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവരുടെ കുടുംബത്തുള്ള ആരെങ്കിലുമോ അതിനോടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടായി അതിൽ ചേരണു ഇത്രേ ഉള്ളു സംസ്ഥാനത്ത് പൊതുവെ വിദ്യാഭ്യാസസ്ഥാപനങ്ങൾക്ക് അത്ര വല്യ കുറവൊന്നുമില്ല ഇഷ്ടപ്രകാരമുണ്ട്